ഹലോ ഹലോ പറഞ്ഞോളൂ ആ അതെ പറഞ്ഞോളൂ ആ ഓക്കേ

ആ ഓക്കേ സ്റ്റിച്ച് ഇടാനുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതെ അല്ലേ ആ ഓക്കേ ആ നമുക്കിപ്പോൾ എങ്ങനെ ഛർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഓക്കേ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് തല ഒന്നു സ്കാൻ ചെയ്യുന്നത് നല്ലതാരിയിക്കും കാരണം ഛർദ്ദിച്ച സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള മുറിവാണെങ്കിലും ഉള്ളിലേക്ക് എന്തോരം ചതവും കാര്യങ്ങളും ചെന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാൻ പൊയിക്കോളൂ കൂടെ ഒരാളെ കൂട്ടിക്കോ ഒറ്റയ്ക്ക് എന്തായാലും പോകേണ്ട പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് സ്കാൻ റിപ്പോർട്ടുമായിട്ട് എന്റെ അടുത്തേക്ക് വരണം എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ആ അതുതന്നെ കോഴിക്കോട് ഓൾമോസ്റ്റ് ആ ആ അവിടെ ചെയ്താലും മതി ഇല്ലെങ്കിൽ ബീച്ചിനോട് ചേർന്നുതന്നെ ഒരെണ്ണം വരുന്നുണ്ട് ആ അതായിരിക്കും നിങ്ങൾക്ക് ആ അതുമതിയാവും ആ ഓക്കേ ഓക്കേ എന്തായാലും നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് വരൂ കേട്ടോ ആയിക്കോട്ടെ